ഹലോ ആ സാറേ തോട്ടേക്കാട് ജോർജ്ജ് കെ എൽ എമ്മിൻ്റെ വീടാണോ സാറെ ആ സാറേ ഞാൻ ഞാൻ തോട്ടേക്കാട് ഇടവകേല് പുതിയതായിട്ട് വന്നൊരു ആളാണ് അതാണ് എൻ്റെ പേര് അരുൺ എന്നാണ് ഞാൻ കൂട്ടായ്മ സെൻ ജോൺസിലാണ് സാറെ താമസിക്കുന്നത് ആ ഞാൻ എനിക്ക് നമ്മുടെയീ കെ എൽ എമ്മിലൊക്കെയൊന്ന് പ്രവർത്തിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് അതിന് ഞാനെന്നാണ് ചെയ്യേണ്ടത് ആ എത്തിയേ ഉള്ളൂ വലിയ പ്രവർത്തിച്ച് പരിചയമൊന്നൂല്ല എന്നാലും ആഹാഹാ ആഹാ

ആഹാഹാ ഓക്കേ ആഹാഹാ ഓഹോ ശരി ശരി ആ ഓക്കെ ആഹാ ആഹാഹാ സാറെയെന്നാൽ സാറെ സാധാരണ മീറ്റിംഗ് കൂടുന്നത് വൈകുന്നേരം അല്ലേ വൈകിട്ട് ഓക്കെ ആഹാഹാഹാഹാ ഞാൻ ഹാ ഓക്കേ ഓക്കേ ആ എനിക്ക് എൻ്റെ അച്ചായനുണ്ടെൻ്റെ വീട്ടിൽ ഭാര്യ ഒരു കുട്ടി ഞങ്ങളാകെ നാല് പേരാണ് വീട്ടിൽ അമ്മ മരിച്ച് പോയി ഞാൻ ഇവിടെ ചങ്ങനാശ്ശേരീലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് നാല് പേര് അതേയതേയതെ ഞാനിപ്പം പലപ്പോഴായി മെയ് ദിന റാലിയെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടേയുള്ളു ഇങ്ങനെ ഇതിൻ്റെ ഈയൊരു കെ എൽ ഒന്ന് നടത്തുന്നുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ജോലി ഹും ഹും ഓ ഓക്കേ ആഹാഹാ ആഹാ ആ ഹാ ഹാ ഹാ ഹാ ആ ഓക്കേ നമുക്ക് ആ ഓ ശരി ശരി

ആഹാഹാഹാ ആ ഓക്കേ സാറേ മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ മുപ്പത് മിനിറ്റായി ഓക്കെ ഓക്കെ